പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി പത്ത് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി മൂന്ന് ഇരുപത് എട്ട് രണ്ടായിരത്തി രണ്ട്